ഹലോ വയനാട് റെസ്റ്റോറൻ്റ് ആ ഓക്കേ ആ നമുക്ക് മെയിൻ ഡിഷ് വരുന്നത് പിടിയും കോഴിയും ആണ് മാഡം നമുക്ക് ഒരു പോർഷനാണെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് അതായത് നൂറ്റമ്പതു രൂപയാണ് വരുന്നത് അത് നമുക്ക് ഒരാൾക്കുള്ള പോർഷൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരാൾക്ക് വയറു നിറച്ചു കഴിക്കാനുള്ള പോർഷനായിട്ടാണ് നമ്മൾ കൊടുക്കാറ് അമ്പതുപേർക്കുള്ളതാണല്ലേ അപ്പം നമ്മൾ എങ്ങനെയാണ് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നതാണോ അതോ നിങ്ങൾ വന്ന് കളക്ട് ചെയ്തുകൊള്ളുമോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുത്തരണോ അതോ ആ ഓക്കെ മാഡം അപ്പോൾ നമുക്ക് ഇത്രയും ബൾക്കായിട്ടുള്ള ഓർഡറായതുകൊണ്ട് നമുക്ക് ഫ്രീ ഡെലിവറിയാണ് ഡെലിവറിചാർജൊന്നും നമ്മൾ വേണ്ടി വരില്ല പിന്നെ നമുക്ക് ഫുഡിൽ ആണെങ്കിൽ ഡിസ്ക്കൗണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തുതരാം പിന്നേ നമുക്ക് പിടിയും കോഴിയും തന്നെയാണോ വേണ്ടത് വേറെന്തെങ്കിലും ഡിഷ് അങ്ങനെയെന്തെങ്കിലും വേണോ ബിരിയാണി പിടിയും കോഴിയും തന്നെയാണോ വേണ്ടത് അതോ ആ ബിരിയാണിയും വേണമല്ലേ ആ ഓക്കെ അപ്പം നമ്മൾ ആ ഒരു മിനിറ്റ് മാഡം ഇതൊക്കെ ഒന്നെഴുതി വച്ചോട്ടെ നമുക്കിപ്പോൾ അമ്പതുപേർക്കുള്ള പിടിയും കോഴിയും പിന്നെ ബിരിയാണി ഒരു പത്തെണ്ണം

ആ ഹാ ഹാ ആ ഓക്കെ ഓക്കെ അത് നമ്മൾ എഴുതാം ഒറ്റ മിനിറ്റെ ആ ഓക്കെ അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഇത് സ്ഥലം എവിടെയാണ് മാഡത്തിൻ്റെ

കാറ്ററിംഗ് ആൾക്കാരും ഉണ്ട് ഉണ്ട് മാഡം ആ പത്താൾക്കാരും വേണമല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഈ മാഡത്തിൻ്റെ സ്ഥലം എവിടെയാണ് മാനന്തവാടി ആണല്ലേ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എത്തിക്കഴിയുമ്പോൾ വിളിക്കാം ഇത്രയും ഇത് നമുക്കിപ്പോൾ അഡ്വാൻസ് എന്തെങ്കിലും പേയ്മെൻ്റ് ചെയ്യാൻ പറ്റുമോ ആ ഓക്കെ ഈ നമ്പറിൽ ഗൂഗിൾ ഈ ഗൂഗിൾ പേ ഉണ്ട് അപ്പോൾ ഈ നമ്പറിൽ ഒരു അയ്യായിരം രൂപ അയക്കുകയാണെങ്കിൽ നമ്മളത് പ്രിപ്പേർ ചെയ്തിട്ട് സാധനമൊക്കെ അവിടെ എത്തിച്ചുതരാം ബാക്കി നിങ്ങൾ ഒരു അയ്യായിരം രൂപയെങ്കിലും നമുക്ക് അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമുക്കിപ്പോൾ ബൾക്കായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു ഇത്രയും പ്രോഡക്ട് ഞാൻ കൂട്ടിയിട്ട് മാഡത്തിന് കണക്ക് അയച്ചു തന്നാൽ മതിയോ അതിപ്പോൾ നമുക്ക് ഞാൻ ഇതൊക്കെ ഒന്നു കണക്കുകൂട്ടിയിട്ട് മാഡത്തിനെ കോൺടാക്ട് ചെയ്തുകൊളളാം കാരണം നമുക്കിപ്പോൾ ബ്രെഡ് ഐറ്റംസ് വേണം ഐസ് ക്രീം വേണം ബിരിയാണി വേണം പിന്നെ കാറ്ററിംഗിൻ്റെ ആൾക്കാരും വേണമല്ലോ അപ്പോൾ എല്ലാംകൂടെ ഏകദേശം ആ ഓക്കെ വെജിറ്റബ്ൾസ് വെജിറ്റേറിയൻ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുള്ളതും വേണ്ടേ അപ്പോൾ ബൾക്കായിട്ട് ഞങ്ങൾക്ക് ആ ഓക്കെ എല്ലാം ഞാൻ ഇതാക്കിയിട്ട് എല്ലാത്തിൻ്റേയും കൂടെ കണക്കു കൂട്ടിയിട്ട് ഡിഷുകളുടെ എല്ലാം ഇതാക്കിയിട്ട് ഞാൻ മാഡത്തിന് ഏകദേശം ഒരു ബില്ല് ഞാൻ പറഞ്ഞുതരാം

ആ ഓക്കെ ഓക്കെ ഇല്ല ഞാൻ മാഡത്തിനെ വിളിച്ചു കൺഫേം ചെയ്തിട്ടേ ഞാൻ ഇവിടുന്നു ഇറങ്ങുകയുള്ളൂ

ആ ഓക്കെ മാഡം ഞാനെന്തായാലും നേരത്തെതന്നെ മാഡത്തിനെ കോണ്ടാക്ട് ആ ഓക്കെ ഓക്കെ എന്തായാലും ആ ഞാൻ നോക്കിയിട്ടേ മാഡത്തിനെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പത്തു മിനിട്ടിനുള്ളിൽ ഞാൻ വിളിക്കാം എന്നിട്ട് ബഡ്ജറ്റിൻ്റെ കാര്യം ഞാൻ നോക്കിയിട്ട് ഡെക്കറേഷൻ നമ്മൾ ഹോട്ടൽ ഫീൽഡായതുകൊണ്ട് നമ്മൾക്കങ്ങനെ വരുന്നില്ല മാഡം പിന്നെ നോക്കട്ടേ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തുതരാം ഓക്കെ മാഡം ഞാൻ ആ ഹാ ആ ഹാ ഹാ ഞാനെന്തായാലും മാഡത്തിനെ നോക്കിയിട്ട് ഇത് ഏകദേശം കൂട്ടിയിട്ട് ഞാൻ മാഡത്തിനെ വിളിക്കാം ആയിക്കോട്ടെ മാഡം ആ ഓക്കെ അഞ്ചാം തീയ്യതി അല്ലെ ആ ഓക്കേ അപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ ബഡ്ജറ്റ് ഓക്കെയാണെങ്കിൽ നമ്മൾ ബാക്കി സംസാരിക്കാം

ആയിക്കോട്ടെ ഓക്കെ ആ ശരി